ഞാനൊരു അധ്യാപികയാണ് അതായത് പിന്നെ ഒരു പിന്നെ കോളേജ് അധ്യാപികയാണ് ഗവർമെന്റ് കോളേജിലെ അധ്യാപികയാണ് ആദ്യമൊക്കെയെന്നു വച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ പി ജി പഠിത്തം കഴിഞ്ഞയുടനെ ഞാൻ എനിക്ക് പിന്നെ ഞാൻ പ്രൈവറ്റ് കോളേജുകളിലൊക്കെ പഠിപ്പിക്കാനൊക്കെ പോയിട്ടുണ്ട് അതായത് പ്ലസ്ടുകാർക്കൊക്കെ പഠിപ്പിക്കാനായിരുന്നു പോയി പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ആണ് ഞാൻ ഈ നെറ്റെഴുതിയിട്ട് നെറ്റ് അതായത് നെറ്റ് എഴുതി കുറെ വെയ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഇടയ്ക്കാണ് പഠിപ്പിക്കാൻ പോയത് അപ്പോൾ എനിക്ക് നെറ്റ് കിട്ടി അപ്പോൾ അത് കഴിഞ്ഞിട്ടുമെനിക്ക് വേറെ വേറെ കോളേജുകളിൽ ഇപ്പോൾ ഓരോ വർഷം ഓരോ വർഷത്തേയ്ക്ക് ഇപ്പോൾ ഏതെങ്കിലും പിന്നെ ടീച്ചർമാർക്കൊക്കെ മാറ്റമുണ്ടെങ്കിൽ അതായത് അവർക്കെന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് അവരൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ ഞാനതിന് പഠിപ്പിക്കാനായിട്ട് പോവുമായിരുന്നു